നമ്മൾ ഏത് ആപ്പിലാണോ ഓർഡർ ചെയ്തത് ആ ആപ്പ് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം ഓർഡർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന പേജിൽ നമ്മൾ ചെയ്ത എല്ലാ ഓർഡറുകളും ഉണ്ടാകും അതിൽ നിന്ന് നമ്മൾ ഏത് ഓർഡർ ആണോ ക്യാൻസല് ചെയ്യാൻ ഉള്ളത് ആ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക പിന്നീട് ക്യാൻസൽ എന്ന് ഓർഡർ എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു പേജ് വരും ആ പേജിൽ ക്യാൻസൽ ഓർഡർ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണോ നമ്മൾ ഓഡർ ക്യാൻസൽ ചെയ്യാനുള്ള കാരണം ചോദിക്കും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു പേജ് വരും അതിനകത്ത് കുറേ റീസൺസ് ഉണ്ടാകും അതിൽ നമുക്ക് എന്താണോ ആ ഓഡറ് ക്യാൻസല് ചെയ്യാൻ ഉണ്ടായ കാരണം അത് നമ്മൾ അവിടെ ബോധിപ്പിക്കുക അത് തെരഞ്ഞെടുത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡറ് ക്യാൻസൽ ക്യാൻസൽ പ്രോഡക്റ്റ് എന്ന ഒരുപാ ഒരു ഈ ഒരു ഓപ്ഷൻ ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഓർഡറ് ക്യാൻസൽ ആകും ഇത്രയും ചെയ്താൽ നമ്മൾ ഇവിടെ നമ്മൾ ചെയ്ത ഓർഡറ് നമുക്ക് ക്യാൻസൽ ആക്കാൻ സാധിക്കും